ഹലോ പാസ്പോട്ടിന് കൊടുത്തിട്ടെന്തായി എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വേണോ ഓക്കെ അതിൻ്റെ ഫോട്ടോ മതിയോ അതോ ഫ്രെണ്ടും ബാക്കും വേണോ ഓക്കെ ഞാനത് ഫോട്ടോ നിങ്ങക്ക് അയച്ചു തരാം ഇപ്പോൾ തന്നെ വേണോ ടൈം ഒരു അര മണിക്കൂർ പിടിച്ചാലോ വീട്ടിലാ ഞാൻ കുളിക്കുകയാണ് കുളി കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പോൾത്തന്നെ അയച്ചു തരാം ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വേറെ വേറെന്താ വേണ്ടിയെ ആധാർ കാർഡ് വേണോ ഓക്കേ ആധാർ കാർഡ് ഞാൻ ചെയ്തു തരാം ഇതെങ്ങനെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെയെടുത്തോ പാസ്പോർട്ടിന് കൊടുക്കാനുള്ള ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തോ ഓക്കെ എന്നാൽ ഞാൻ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും നിങ്ങൾക്കയച്ചു തരാം ഓക്കെ വേറെന്തെങ്കിലും വേണോ വേറേ ഉമ്മാൻ്റേതോ ഉപ്പാൻ്റേതോ ആരുടെയെങ്കിലും എൻ്റേതല്ലാതെ അങ്ങനെയാണെങ്കിൽ അതും ഇപ്പോൾ പറഞ്ഞെടാ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം കേട്ടോ അതിൻ്റുള്ളിൽ അയച്ചു തരാം ഓക്കെ ഓക്കെ